എൻ്റെ ജീവിതത്തിലെന്നെ കരയിപ്പിച്ചൊരു പുസ്തകമെന്ന് പറയുന്നത് ബൈബിളാണ് ബൈബിൾ ബൈബിൾ ഞാൻ എല്ലാ പുസ്തകങ്ങളും എല്ലാ അദ്ധ്യായങ്ങളും ഞാൻ വായിച്ചിട്ടുണ്ട് പഴയ നിയമം വായിച്ച് മുഴുവൻ തീർത്തു പുതിയ നിയമം വായിച്ചപ്പോഴാണ് എന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും എനിക്ക് സങ്കടകരമായ എന്നെ കരയിപ്പിച്ചിട്ടുള്ള സങ്കടം എനിക്ക് ഭയങ്കരമായ സങ്കടം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത് ബൈബിളിൻറ്റെ പുതിയ നിയമം വായിച്ചപ്പോഴാണ് യേശു നാഥൻ്റെ കുരിശു മരണവും പീഡാസഹനങ്ങളുമൊക്കെ എന്നെ ഒരുപാട് കരയിപ്പിച്ചിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ അത് വായിക്കുമ്പോള് എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളുമായിട്ടാണെനിക്കത് തോന്നിയിട്ടുള്ളത് ക്രിസ്തു കുരിശിൻ്റെ വഴിയില് കുരിശിൻ്റെ വഴിയിലൂടെ പോനാ പോകുമ്പോള് അനുഭവിച്ച ഓരോ പീഡകളും അദ്ദേഹത്തിൻ്റെ വീഴ്ചകളും നമുക്ക് വേണ്ടി സഹിച്ച മുറിപ്പാടുകളുമൊക്കെ എൻ്റെ ജീവിതത്തിൽ എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട് കണ്ണീരോടെ അല്ലാതെ എനിക്ക് എൻ്റെ പുതിയ നിയമം വായിച്ച് തീർക്കാൻ എനിക്കിതുവരെ സാധിച്ചിട്ടില്ല ഇപ്പോഴും ഞാൻ എന്നെ എന്നെ അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യമെന്ന് പറഞ്ഞാല് കുരിശ് മരണത്തിൻ്റെ പറ്റിയുള്ള അദ്ധ്യായങ്ങളൊക്കെ വായിക്കുമ്പോള് എൻ്റെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളെക്കുറിച്ചുമെനിക്ക് അങ്ങനെ താരതമ്യം ചെയ്യപ്പെടും ചെയ്യാൻ തോന്നും തോന്നുന്നുണ്ട് കുരിശ് മരണം പീഡാനുഭവം അതൊക്കെ ഓർക്കുമ്പോൾ അത് നമുക്ക് കണ്ണീരോടെയല്ലാതെ ഒരിക്കലും വായിച്ച് തീർക്കാനെക്കൊണ്ട് സാധിക്കത്തില്ല ഈശോ സഞ്ചരിച്ച വഴികളെക്കുറിച്ചും ചുമന്നുകൊണ്ട് ഓരോ നടക്കുന്ന ഓരോ വഴികൾ വഴിയിൽ വെച്ച് മാതാവിനെ കാണുമ്പോള് ഒരു മക ലോകത്തിലെ ഏറ്റവും പീഡന സഹനം നിറഞ്ഞ ഒരു സമയമാണത് ഇത്രയും വേദനകളനുഭവിച്ചുകൊണ്ട് നടക്കുമ്പോള് തൻ്റെ മകൻ താൻ വളർത്തിയ മകൻ കുരിശും ചുമന്നുകൊണ്ട് മറിഞ്ഞുവീണ് ചോ രക്തം ഒലിപ്പിച്ചൊക്കെ വരുന്നത് കാണുമ്പോള് ഒരു മാതാവിൻ്റെ ഹൃദയത്തിലുണ്ടാകുന്ന വേദനകളൊക്കെ നമ്മൾക്ക് ഒരിക്കലും ആസ്വാദ്യതയോടെ വായിക്കാൻ കണ്ണീരോടെയല്ലാതെ വായിക്കാൻ പറ്റത്തില്ല ഒരിക്കലും ആസ്വദിച്ച് വായിക്കാനത് കഴിയത്തില്ല നമുക്ക് കണ്ണീരാണ് അതിന് മുമ്പില് വരുന്ന കണ്ണുനീരാണ് പീഡാ സഹനമെന്ന് പറയുമ്പോള് മാതാവിൻ്റെ ആ കണ്ണുനീര് അത് പുത്രനെ ഓർത്തിട്ടുള്ള വ്യാകുലതകള് അതൊക്കെ നമ്മുടെ ഹൃ ഹൃദയത്തിലേക്കും കടന്നുവരുന്നുണ്ട് ഓരോ പ്രാവശ്യം വീണൊക്കെ നിലത്ത് കുരിശും താങ്ങിപ്പോകുമ്പോള് നിലത്ത് വീഴുമ്പോള് ഈശോയേ അങ്ങയുടെ കുരിശൊന്ന് താങ്ങുവാനെനിക്ക് കഴിയുന്നില്ലല്ലോന്നോർത്ത് വ്യാകുലപ്പെടാൻ നമുക്ക് സാധിക്കും എത്ര എന്ത് വേദനകളാണ് ആ സമയത്ത് നമുക്കുണ്ടാകുന്നതെന്ന് വിവരിക്കാൻ പോലും സാധിക്കത്തില്ല വഴിയിൽ വെച്ച് ഈശോ ഓരോ ത ഓരോ സ്ഥലത്തും വീഴുമ്പോള് രക്തം ഒലിച്ച ആ മുറിപ്പാടുകള് കാണുമ്പോള് അതൊക്കെ നമ്മുടെ കണ്മുൻപിലൂടെ ഇങ്ങനെ അതൊക്കെ വായിക്കുമ്പോള് നമുക്കതെല്ലാം നമ്മുടെ കണ്മുൻപിലൂടെ നടന്ന് പോകു നടക്കുന്ന ഒരു സംഭവമായിട്ടാണ് നമുക്കത് തോന്നുന്നത് ഒരിക്കലും നമ്മളെ സന്തോഷിപ്പിക്കുന്ന സന്തോഷത്തോടെ നമുക്ക് പുതിയ നിയമം വായിച്ച് തീർക്കാൻ പറ്റത്തില്ല ഈശോയുടെ വചനങ്ങൾ നമുക്കെത്രയും പ്ര പ്രചോദനകരമായിട്ട് നമുക്ക് തോന്നുന്നു നടക്കുന്ന കാര്യങ്ങളാണ് ആണങ്കിൽ തന്നെയും ഒരിക്കലും പുതിയ നിയമത്തിലെ പീഡാ സഹനത്തിൻ്റെ ആ അദ്ധ്യായങ്ങളൊക്കെ വായിക്കുമ്പോള് നമുക്ക് കണ്ണുനീര് മാത്രമേ വരത്തുള്ളൂ അത് നമ്മുടെ ജീവിതത്തോട് ചേർത്തുവയ്ക്കുമ്പോഴാണ് നമുക്ക് ഈശോയുടെ പീഡാസഹനം പൂർണ്ണമായിട്ടും ഒരു ഒന്നനുഭവക്കാൻ കഴിയുന്നത് അനുഭവവേദ്യമാകുന്ന ഒരു കാര്യമെന്നു പറഞ്ഞാല് ഈശോ കുരിശ് താങ്ങി പോകുന്നത് വഴിയിൽ വെച്ച് വീഴുന്നതും മാതാവിനെ കാണുന്നതും ഈശോയെ സഹായിക്കാൻ ശീമോനടുത്ത് വരുന്നതും അപ്പോഴൊക്കെ നമുക്ക് തോന്നി ഈശോയെ അങ്ങയെ സഹായിക്കാൻ എനിക്കൊന്നും സാധിച്ചില്ലല്ലോ എന്ന് തോന്നിപ്പോകുന്ന ഒരു അത്രയും ആത്മാർഥതയോടെ നമുക്ക് തോന്നിപ്പോകുന്ന ഒരു നിമിഷങ്ങളാണതിൻ്റെ വായനയെന്നൊക്കെ പറയുന്നത് അതാണ് എൻ്റെ ജീവ എൻ്റെ ജീവിതത്തിലെന്നെ കരയിപ്പിച്ചിട്ടുള്ള ഒരു പുസ്തകമെന്നു പറഞ്ഞാൽ പുതിയ ബൈബിളിലെ പുതിയ നിയമങ്ങ പുതിയ നിയമ അധ്യായങ്ങളാണ് അദ്ധ്യായത്തിലെ പീഡന സഹനഭാഗങ്ങളാണെന്നെ കരയിപ്പിച്ചിട്ടുള്ള പുസ്തകം